എനിക്ക് ഇഷ്ടപ്പെട്ട സംഗീതയിനം എന്ന് പറയുമ്പോൾ മെലഡി ഗാനങ്ങളോടാണ് അതായത് വലിയ തട്ടുപൊളിപ്പൻ പാട്ടുകളൊന്നും അല്ലാതെ സാധാരണ രീതിയിൽ പതുക്കെ ഉള്ള പാട്ടുകളോടാണ് എനിക്ക് താൽപ്പര്യം അതായത് നമ്മുടെ മണിച്ചിത്രത്താഴിൽ പലവട്ടം പൂക്കാലം അങ്ങനെ ഇത് അങ്ങനെ കുറച്ച് പാട്ടുകൾ അതിൽ ചിലത് ഇപ്പോൾ പുതിയ രീതിയിൽ പുതിയ വരുന്ന സിനിമ പാട്ടുകളൊന്നും ആ രീതിയിലുള്ള ഓ പൂർണ്ണമായൊരു മെലഡി രീതിയിലുള്ള സിനിമ പാട്ടുകളായിട്ട് അല്ല സംഗീതങ്ങളായിട്ട് എനിക്കൊന്നും തോന്നാറില്ല പഴയ രീതിയിലോടാണ് എനിക്ക് ഇങ്ങനെ താൽപ്പര്യം തോന്നാറുള്ളത് ഞാൻ ഇടയ്ക്ക് കേൾക്കാറുണ്ട് ഫോണിൽ നിന്ന് അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന സമയങ്ങളിലൊക്കെയും അല്ലെങ്കിൽ മനസ്സിന് കുളിർമ നൽകുന്ന രീതിയിൽ അൽപ്പം ടെൻഷൻ ഒക്കെ ആയിരിക്കുന്ന സമയങ്ങളിൽ ഒക്കെ ചെറിയ രീതിയിൽ ഞാൻ മെലഡി സോങ്ങുകൾ ഞാൻ ആസ്വദിക്കാറുണ്ട് ആസ്വദിക്കുന്നത് എനിക്കിഷ്ടം ആണ് അങ്ങനുള്ള പാട്ടുകൾ എവിടെയെങ്കിലും കേൾക്കുമ്പോൾ അങ്ങനത്തെ സംഗീതം കേൾക്കുമ്പോൾ ഞാനത് ശ്രദ്ധിക്കാറുണ്ട് അതിനോട് എനിക്കൊരു ചെറിയ താൽപ്പര്യം ഉള്ളത് കാരണം പിന്നെ പഴയകാല മെലഡികൾ കൂടുതലും വരുന്നതും പഴയകാല മെലഡികളാണ് നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് പുതിയ രീതികളോട് എതിർപ്പൊന്നും ഇല്ല എങ്കിലും പുതിയ രീതികൾ പലതിനോടും അത്രയും കിടപിടിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല പഴയകാല സംഗീത പാട്ടുകൾ അത് ഹിന്ദി ആണെങ്കിലും മലയാളം ആണെങ്കിലും ചിലതൊക്ക മനസ്സിൽ എപ്പോഴും ഓർത്തിരി എവിടെ കേട്ടാലും ഒന്ന് മൂളാൻ തോന്നുന്ന രീതിയിലുള്ള പാട്ടുകളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഞാൻ എൻ്റെ പ്രഗ്നൻസി ടൈമിൽ ഗർഭിണി ആയിരിക്കുന്ന സമായത്തൊക്കെയും ഞാൻ പാട്ടുകളൊക്ക കേൾക്കാറും ആസ്വദിക്കാറും ഉണ്ടായിരുന്നു ഫോണിൽ നിന്ന് അപ്പോൾ എനിക്കൊരു ടെൻഷൻ റിലീഫ് കിട്ടാനും അല്ലെങ്കിൽ എന്നാ മനസ്സിനൊരു കുളിർമ നൽകാനും സമയം പോവാനും ഒക്കെയും അതെന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് പഴയകാല സംഗീതത്തിലൂടെ നല്ല മെലഡി പാടുന്ന ആൾക്കാരെ യേശുദാസിനെയും ചിത്രയെയും പോലുള്ള ചില ആൾക്കാർ ചെല മ പോലുള്ള അവരുടെ മെലഡികൾ പുതിയ പുതിയ പുതിയ തട്ടുപൊളിപ്പൻ പാട്ടുകൾ അതായത് ഒച്ചയും സംഗീതവും വലിയ ഡംബെൽസും അല്ലേ എന്താണ് പറയുന്നത് ബാസ് കൂടിയ രീതിയിലുള്ള പുതിയ രീതിയിലുള്ള ആ പാട്ടുകളെ എപ്പോഴും അത് നമ്മൾ ഒന്ന് കേട്ട് കഴിയുമ്പോൾ നമ്മുടെ മനസ്സിൽ നിന്ന് അതങ്ങ് പോകും പക്ഷേ പഴയ പാട്ടുകൾ കേൾക്കുമ്പോൾ തന്നെ പഴയ മെലഡികൾ മെലഡി സോങ്ങുകൾ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ അത് എപ്പോഴും ഓർത്തിരിക്കാൻ എവിടെ കേട്ടാലും ഒന്ന് മൂളാൻ അങ്ങോട്ട് ഒന്ന് ചെവി കൊടുക്കാൻ ഒന്ന് ചെവി ചായ്ക്കാൻ തക്കതായിട്ട് നമുക്കൊരു തോന്നുന്ന രീതിയിൽ ഉള്ളതാണ് പഴയ മെലഡി സോങ്ങുകൾ അതുകൊണ്ടാണ് മെലഡിയോട് ഒരൽപ്പം താൽപ്പര്യം തോന്നാനുള്ള കാരണം എനിക്കൊരു മകനുണ്ട് എൻ്റെ മകനാണെങ്കിലും അൽപ്പം പാട്ടൊന്ന് മൂളുന്നവനും ഒക്കെയാണ് അതും മോന് ഞാനും കുഞ്ഞിന് ചിലപ്പം ഞാൻ പ്രഗ്നൻസി ടൈമിൽ അൽപ്പം മെലഡി കേട്ടത് ഒക്കെ അങ്ങനെ ഞാൻ സംഗീതത്തെ ഇഷ്ടപ്പെട്ടത് കൊണ്ടായിരിക്കാം അവനും അൽപ്പം അതിനോടൊരു താൽപ്പര്യവും ഇഷ്ടവും തോന്നുന്നത് കുഞ്ഞുങ്ങൾക്ക് താരാട്ട് പാടുമ്പോഴും അറിയാതെ ആ ചെറിയ പാട്ടുകളൊക്കെ ഞാൻ ഉപയോഗിക്കാറുണ്ട്